നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നമുക്ക് രാത്രിയിലെ ആകാശത്ത് നോക്കുമ്പോഴത്തേക്ക് നക്ഷത്രം ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നിക്കും അപ്പം ഇനി പൂർണമായിട്ട് നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ ഒരു മഴയ്ക്ക് ഒരു സാധ്യത മ മഴയ്ക്കുള്ള ഒരു ഒ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മന ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിൽ തോന്നിക്കും അതുപോലെ തന്നെ മൂണും മൂണിൻ്റെ ആണേലും ഒരു മൂൺ പ്രത്യക്ഷപ്പെടാൻ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു പിന്നെ പ്രകാശം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടും ഇരുട്ട് തോന്നിക്കുന്ന പോലെ തോന്നും അപ്പോൾ ചന്ദ്രൻ ഉണ്ടെങ്കിലേ നല്ല പ്രകാശം ആയിട്ട് കാണുന്നു അതുപോലെ തന്നെ പകൽ സമയം സൂര്യൻ മാ ഒരു മങ്ങുന്ന സമയത്ത് കാർമേഘം ഉണ്ടെങ്കിൽ നല്ല മഴ പെയ്യാനും ഒക്കെ ഉള്ള സാധ്യതകൾ ഉണ്ടാകും അപ്പം അങ്ങനെ ഇരിക്കുന്ന അപ്പം അത് അങ്ങനെ ഉള്ളതാണ് ഇപ്പോൾ ഈ ചന്ദ്രനെ പറ്റി ആയാലും സൂര്യനെ പറ്റി ആയാലും നക്ഷത്രങ്ങളെ അതേ പോലെ തന്നെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇരിക്കുന്നു ഇപ്പോൾ നക്ഷത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്